നമ്മുടെ കൃഷിയിലെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നവീന ഉപായങ്ങളെന്നു പറഞ്ഞാൽ നിലവിൽ പണ്ടൊക്കെ കാളകൂട്ടി അതുപോലെ ഒക്കെയായിരുന്നു കണ്ടം അത് നെൽക്കൃഷിക്കൊക്കെ ഉഴുതു മറിച്ചുകൊണ്ടിരുന്നത് അതുപോലെതന്നെ കപ്പക്കൃഷി കപ്പക്കൃഷിയ്ക്ക് നല്ല രീതിയിൽ മുഴുത്ത കുടിൽ വെട്ടി അതൊക്കെ ചെയ്തിട്ട് കണ്ടിട്ടൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ മൊത്തം ഇതു മാറിയിട്ട് നിലവിൽ ചെയ്യാൻ ഇപ്പം ഒന്ന് ഹൈറേഞ്ചിലെ സംബന്ധിച്ച് ഏലക്കൃഷിയുടെ ഒരു ഇതു വന്നു തേയിലക്കൃഷിയുടെ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പം കപ്പക്കൃഷിയോ അല്ലേ മറ്റു നെൽകൃഷികളോ ഒന്നും ഇല്ലാതായി വരൾച്ച കൂടിയതിൽ ആയതുകൊണ്ട് നെൽക്കൃഷികൾ നിന്നുപോയി നിവിലിൽ ഇതിനെക്കുറിച്ചൊക്കെ ഉപായങ്ങൾ എന്താണെന്നു ചോദിച്ചാൽ ഇപ്പോൾ അതാത് പ്രദേശത്തിൻ്റേതായ ഒരു കൃഷി ചെയ്യാനുള്ള ഒരു ഒരു സംവിധാനം ഉണ്ടാകുക എന്നുള്ളതെ ഉള്ളൂ ഇപ്പോൾ നിലവിലെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് എന്നു പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് കൃഷിയുള്ളത് ഏലമാണ് ഏലം ഏലം കൃഷി ചെയ്ത് കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് വളം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ എല്ലാം ചെയ്തു കൊടുക്കുക പിന്നെ ഏലത്തിൻ്റെ അതിന് ഇത് കേടിനെക്കുറിച്ച് ഒക്കെയുള്ള വിവരങ്ങൾ ചെയ്തു കൊടുക്കുക അതൊക്കെ ചെയ്തു കൊടുക്കാൻ സർക്കാരിൻ്റെ പുറത്തുനിന്നുള്ള പ്രത്യേക സഹായങ്ങൾ കൃഷി ചെയ്യുന്നവർക്ക് ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിലവിലിപ്പോൾ കാലാവസ്ഥയെല്ലാം മാറിപ്പോയതിൻ്റെ പേരിൽ ചൂടു കൂടുതലാണ് വെള്ളത്തിനു ക്ഷാമമാണ് അതുകൊണ്ട് കൃഷികളെല്ലാം ഇതാണ് അപ്പോൾ വെള്ളത്തിൻ്റെ സംവിധാനങ്ങൾ ചെയ്തു കിട്ടുകയാണെങ്കിൽ കുറച്ചെല്ലാം കൂടി കൃഷിയെ പുതിയ കൃഷികളൊക്കെയുണ്ടാകും അതായത് ഇപ്പോൾ നിലവിൽ ചെയ്തു കൊണ്ടിരിക്കുന്ന കൃഷികൾ അതുപോലെതന്നെ പുതുക്കി ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിലും അത് നിലനിർത്തിക്കൊണ്ടു വരണമെങ്കിലും കൃഷി ചെയ്തു നിലനിർത്തിക്കൊണ്ടു വരണമെങ്കിലും വെള്ളം വേണം വെള്ളത്തിൻ്റെ സംവിധാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുതരണം ഈ കൃഷി ഉപായങ്ങൾ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി തൊഴിലിലുള്ളത് എന്തൊക്കെയാണെന്നു ചോദിച്ചാൽ ഈ കൃഷി ചെയ്യുമ്പം അതാത് പ്രദേശം ഇപ്പം ഇടുക്കി ജില്ലയിലെ സംബന്ധിച്ച് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ ഇടുക്കി ജില്ലയിൽ ഏലം കാപ്പി കുരുമുളക് തേയില ഒക്കെയാണ് ഏറ്റവും കൂടുതൽ മറ്റു കൃഷികളൊന്നും വലിയ കാര്യമായിട്ടില്ല പച്ചക്കറി കൃഷികളൊക്കെ കുറച്ചൊക്കെയുണ്ട് എങ്കിൽപ്പോലും അതൊക്കെ യാതൊരുവിധ സൌകര്യം വിധത്തിലും ഇപ്പോഴും അതു ചെയ്യാൻ പറ്റുന്നില്ല വെള്ളമില്ല വെള്ളമില്ലായ്ക മാത്രമല്ല അത് ഒക്കെ പച്ചക്കറിക്കൃഷിയെ കുറിച്ച് ചെയ്താലത് ഭയങ്കര നഷ്ടമാണെന്നു പറഞ്ഞു കഴിഞ്ഞാൽ കേട് കൂടുതലാണ് ഒരു ഒരു കാരണവശാലും കൃഷികളെ രണ്ടും കൂടെ അല്ല ഇതിനൊക്കെ ഉപാദി എന്നു പറയുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ ഏതു പ്രദേശത്തേത് കൃഷി ചെയ്താൽ വിജയിക്കും എന്നതിനെക്കുറിച്ചൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ അത് അതാത് പ്രദേശത്ത് അതി നായി ഏതു പഞ്ചായത്തുകളിലൊക്കെ ഉള്ള ആ ഈ കർഷകരുമായിട്ട് അത് ഒരു അഭിപ്രായ സർവ്വേയൊക്ക നടത്തി സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളൊത്തിരിയുണ്ട് അതൊക്കെ നോക്കി ചെയ്ത് ചെയ്യണം എന്നു സർക്കാർ ഇതിലെല്ലാം ഇടപെടണം നവീന രീതിയിലുള്ള കൃഷി എന്നു പറയുമ്പോൾ ഈ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് വേറെ മറ്റു കൃഷികളൊന്നും വലിയധികം ചെയ്യാൻ പറ്റുമെന്നെനിക്ക് തോന്നുന്നില്ല കാരണം എന്നാന്നു വെച്ചാൽ കാലാവസ്ഥ മാറി പിന്നെ ഇടുക്കി ജില്ലയുടെ ചില മേഖലകളിൽ മാത്രം വേരുകൾ പിടിക്കൂള്ളൂ അതുപോലെ അതിന് മുന്നോട്ടു കൊണ്ടുപോകണമെങ്കിൽ അതുപോലെ എല്ലാ സ്ഥലം ഈ റബ്ബർ എല്ലാ സ്ഥലത്തൊന്നും പിടിക്കില്ല നിലവിൽ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സർക്കാരിൻ്റെ അതുപോലെതന്നെ കൃഷി ഇപ്പോൾ ഇതുമായി നല്ലപോലെ ആലോചിച്ച് ആ കൃഷിക്കാരുമായിട്ട് ആലോചിച്ച് അതായത് പഞ്ചായത്തിൻ്റെ ഇതിൽ ചെയ്യേണ്ടതാണത് എങ്കിലേ പുതിയ കൃഷിയെക്കുറിച്ച് മറ്റ് ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷികൾപോലും മുന്നോട്ടുകൊണ്ടുപോവാൻ സാധിക്കാത്ത ഈ ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞുവന്നത് നിലവിൽ ഇത് ഏത് കൃഷി ചെയ്താലും അതിനെക്കുറിച്ച് അതാത് ഭൂപ്രദേശ അതാത് കാലാവസ്ഥയ്ക്കനുസരിച്ച് ചെയ്യാൻ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്ഥമായിട്ടാണ് നിൽക്കുന്നത് കോട്ടയത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ എറണാകുളത്തോ ചെയ്യുന്ന കൃഷികളൊന്നും അല്ല നമ്മുടെ ജില്ലകളിൽ ചെയ്യുന്ന കൃഷികളൊന്നും അല്ല നമ്മുടെ ഈ ഇടുക്കി ജില്ല പോലുള്ള ജില്ലകളിൽ ചെയ്യുന്നത് അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങളെന്നു പറഞ്ഞാൽ നിലവിൽ സർക്കാർ കാർഷികരംഗത്ത് പുതിയ രീതിയിലുള്ള ഉപായങ്ങളൊക്ക ആലോചിച്ച് ഇത് ചെയ്യാൻ കർഷകനെയൊക്ക ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ചെയ്യണം അല്ലാതെ കർഷകനെ എന്തെങ്കിലും ചെയ്യുന്നു അവനെന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നുള്ളതിന്